സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറെ അധികം ഇവിടെ സ്കൂള് പാഠ്യേതര പ്രവർത്തങ്ങൾ ഉണ്ടായിരുന്നു കുറെ മത്സരങ്ങള് കായിക മത്സരങ്ങളായാലും ഓട്ടം ചാട്ടം അല്ലാതെ ലോങ് ജംപ് ഹൈ ജെമ്പ് അങ്ങനത്തെ കാര്യങ്ങളല്ലാതെയും മത്സരങ്ങളായിട്ട് ഉപന്ന്യാസ രചന കവിതാ രചന പിന്നെ നാടമ്പാട്ട് കവിതാലാപനം അങ്ങനെ കുറെ ആക്റ്റിവിറ്റീസ്സ് സ്കൂളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതില് കായിക ഇനങ്ങൾലൊന്നും അധികം പങ്കെടുത്തിട്ടില്ലാരുന്നു ഞാൻ പങ്കെടുത്ത മത്സരങ്ങള് ഉപന്ന്യാസ രചനയ്ക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നാടൻ പാട്ടിനും കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ സംഘഗാനം ഇതില് മൂന്നിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഉപന്ന്യാസ രചന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉപന്ന്യാസ രചനയ്ക്ക് ഫസ്റ്റ് പ്രൈസുണ്ടായിരുന് സ്കൂളില് പിന്നെ പിന്നെ അതിന് ശേഷം പിന്നെ അതേപോലെ സംഘഗാനം നാടൻ പാട്ടും കയറുന്നത് ഏഴാംക്ലാസിൽ പഠിക്കുന്ന സമയത്ത അതില് ഞങ്ങൾക്ക് തേഡ് പ്രൈസ് എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ ഏതാണ് കായിക മത്സരങ്ങള് കൂടുതല് ഞാൻ പങ്കെടുത്തില്ല ഇതെപോലെ ഉള്ള ഉപന്ന്യാസ രചന പിന്നെ അതേപോലെ നാടൻ പാട്ടിനും സംഘഗാനത്തിനൊക്കെ കൂടുതല് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു